ഹലോ ഡ്ര ഡ്രംസ് ആൻഡ് ട്രാവൽസ് അല്ലേ ഇത് ആ ഞാനേ പുൽപ്പറ്റയിൽ നിന്നാണ് രാജേഷ് എന്ന ആളാണ് എനിക്ക് കോയമ്പത്തൂർ പോവാൻ വേണ്ടി അന്ന് ആ ബുക്ക് ചെയ്ത ആ ആ ഡ്രൈവർ പ പൈസ കൂടുതൽ ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ച ആ സംഖ്യയിൽ നിന്നും കൂടുതലാണല്ലോ ഇപ്പോൾ ഇയാൾ ചോദിക്കുന്നത് അപ്പം എന്താണ് ഇപ്പം ഇത് ഇങ്ങനെ ഒക്കെ നമ്മൾ ആദ്യമായിട്ട് റേറ്റ് ഒക്കെ പറഞ്ഞൊക്കെ റെഡി ആയി പറഞ്ഞ് ഇതാക്കിയതിൻ്റെ ശേഷം പറഞ്ഞ ഡ്രൈവർമാർ അവർ കൂടുതൽ പൈസ ചോദിക്കുന്നതൊക്കെ ശരിയായ നടപടി അല്ലല്ലോ അത്

ആളുടെ ഡ്രൈവറെ നമ്പർ ഡ്രൈവറെ പേര് വേണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അയാളെ ന നമ്പർ ചെന്ന് വിളിച്ച് ഒന്ന് ചോദിച്ചുനോക്ക്